മൃഗ വളർത്തലിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും മൃഗങ്ങൾക്ക് വരുന്ന ആരോഗ്യപ്രശ്നങ്ങളും അസുഖങ്ങളുമാണ് അതുമൂലം കർഷകർക്ക് താങ്ങാവുന്നതിലധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണമായ പരിപാലനം ലഭിക്കാതെ മൃഗങ്ങൾ മരണപ്പെടുന്നു ഇതുപോലെ തന്നെ അനവധി അസുഖങ്ങൾ വന്ന് ഇന്ന് മരണപ്പെടുന്നുണ്ട് പല മൃഗങ്ങളും എന്താണ് അസുഖം വരെ എന്ന് അറിയാതെ തിരിച്ചറിയാതെ മരണപ്പെടുന്നു ഇത് തരണം ചെയ്യുക എന്ന് പറയുന്നത് ഈ അസുഖങ്ങൾക്ക് മുൻകരുതലായി പല കുത്തിവയ്പുകളും ഇന്ന് നടത്താം ഒരു മൃഗത്തിന് വന്ന അസുഖം എന്താണെന്ന് കണ്ട് പിടിച്ച് അവ മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും വരാതിരിക്കാനും വേണ്ടി മുൻകരുതലുകൾ എടുക്കണം അതുപോലെ തന്നെ അതാത് മൃഗാശുപത്രികളിൽ നിന്ന് അവളെ അടുത്തുള്ള കർഷകർക്ക് തൻ്റെ മൃഗങ്ങളെ പരിപാലിക്കാനായ വസ്തുക്കൾ കൊടുക്കണമെന്നും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പല പല മൃഗങ്ങളെയും നമുക്ക് സംരക്ഷിക്കാനും രക്ഷിക്കാനും കഴിയും അതുപോലെ തന്നെ ഈ മൃഗപരിപാലനം എളുപ്പമാക്കാനും സാധിക്കും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുമ്പോൾ എൻ്റെ മൃഗങ്ങൾ അമ്മ ഏച്ചി എല്ലാ അങ്ങനെ ആൾക്കാർ നോക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം ഞാൻ മാറി നിന്നാലും നോക്കാനിവിടെ ആൾക്കാരുണ്ട് അതുപോലെ എനിക്ക് മൃഗങ്ങളോട് മോശം ഇത്ന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ പണ്ട് ചെറുതായിരുന്നപ്പോൾ ഒരു പശു പശുക്കിടാവ് പശു മരിച്ചതാണ് എന്താന്ന് വെച്ചാൽ പോയിസൺ വന്നിട്ടായിരുന്നു കപ്പയുടെ തൊലി കഴിച്ച് പോയിസണായി അവരുടെ വയർ വീർത്ത് അവർ മരിക്കുകയായിരുന്നു ഇത് ശരിക്ക് എനിക്കറിയില്ലായിരുന്നു ഈ കപ്പത്തൊലി പശുവിന് കൊടുക്കാൻ പാടില്ല എന്നത് ഇപ്പോൾ അങ്ങനെ അങ്ങനെ വന്ന് പശു മരിച്ചു അതായിരുന്നു എനിക്ക് ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടൊരു മോശം എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു കാര്യം